ഇപ്പം നമ്മുടെ നാട്ടിലെന്നു പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ ഇപ്പം ഓരോ പുതിയ ടെക്നോളജി അനുസരിച്ച് കുറേ ഐറ്റംസ് കാര്യങ്ങള് പുതിയ പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉള്ള ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊൾ പഴയത് അനുസരിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ കൂടുതല് കുറച്ചും കൂടി കെയറ് കാര്യങ്ങളൊക്കെ തരാനും ട്രീട്മെൻ്റിനുള്ള ഓരോ ഒഐ സജ്ജീകരണങ്ങളും കാര്യങ്ങളും ഹോസ്പിറ്റല് തന്നെയാന്നുണ്ടെങ്കിൽ പുതുക്കി കുറച്ചും കൂടി ഹൈടെക് ആക്കി ജനങ്ങൾക്ക് കുറച്ചുംകൂടി കാര്യങ്ങള് ഹെൽപ്പ് കുറച്ചുംകൂടി മനസ്സിലാക്കാനും ഒക്കെയുള്ള സജ്ജീകരണങ്ങള് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് അവൈലബിളായ രീതിയിലും കുറച്ച് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയ രീതീലൊക്കെ ചെയ്യാൻ പാകത്തിന് ഓരോന്നിങ്ങനെ ഇങ്ങനെ ചേയ്ഞ്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്